ജോലി സ്ഥലത്തെ സംഘർഷങ്ങളിൽ എന്ന് പ്രധാനമായിട്ട് പറഞ്ഞാൽ നമുക്ക് മോള്ന്നുള്ള പ്രേഷറായിരിക്കും നമ്മുടെ മൂന്നോട്ടുള്ള ഒരുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നമ്മടെ ഒരു എച്ച്ആറിൽന്നുള്ള ഒരു പ്രേഷറും കാര്യങ്ങളൊക്കെയായിരിക്കും അത്തരത്തിലുള്ള പ്രേഷറുകള് നമ്മള് നമ്മളെകൊണ്ട് പറ്റുന്ന കാര്യങ്ങള് നമ്മള് ചെയ്യും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മള് എന്താ പറയുക മനസ്സില് വെക്ക് ആ നമ്മള് കൊറച്ച് ചെലപ്പോ ചീത്ത കേട്ടാലും നമ്മള് മൈൻഡ്സെറ്റിലെടുത്ത് അത് അങ്ങ് ജസ്റ്റ് നിങ്ങള് പിന്നെ വിട്ട്കളയാ കാരണം അവർക്കും അവരുടേതായിട്ടുള്ള പ്രെഷറുണ്ടെന്നു മനസ്സിലാക്കി നമ്മള് ഇല്ല്യാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മനസ്സിൽ കൊണ്ടനടക്കണ്ട കാര്യയില്ലെന്നാണ് എൻറ്റൊരഭിപ്രായം അതുകൊണ്ടെന്നേ ചില നമുക്ക് പ്രയാസകരായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മള് തന്നെ കൊറച്ച് സമയെടുത്താലും നമ്മള് തന്നെ ചെയ്യും അതല്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്ന ആരോടെങ്കിലും അതിൻ്റെ അഭിപ്രായം ചോദിക്കും അല്ലെ നമ്മള് തൊട്ടടുത്തുള്ള ആളോട് ചോദിക്ക്യാ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നൊര് ഐഡിയയില്ല ആ ഒന്ന് ഹെൽപ്പ് ചെയ്യോന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ഹെൽപ് ചെയ്യും ചിലപ്പോൾ ചിലവർക്ക് പണി കുറവും ഉണ്ടാകും അപ്പോൾ നമ്മളവരെ അവരെ അവരെ നമ്മളെ കൂടുതൽ ഹെൽപ് ചെയ്യാൻ പറഞ്ഞാൽ ഹെല്പ് ചെയ്യും ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഒരു കോവർക്കേസും ആയിട്ടുള്ള നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അവരെയായിട്ടു അവരെകൂടെ നമ്മുടെ കാര്യങ്ങളിലിടാതെ അതായത് നമുക്കൊരു കാര്യങ്ങൾക്കൊരു ഹെൽപ് കാര്യങ്ങളൊക്കെ അവര് ചെയ്യും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾക്ക് നമ്മള് തിരിച്ചും ഹെൽപ്പെല്ലാം നമ്മക്ക് ചെയ്ത് മൊത്ത ഇങ്ങനെ സാഹചര്യത്തിൽ അതിജീവിക്കണ്ട സ്വാതന്ത്ര്യം